ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത് പ്രകൃതിവിഭവം പറയുമ്പോൾ മാങ്ങ മാങ്ങകൾ നന്നായിട്ടുണ്ടാകുന്നൊരു സ്ഥലമാണ് അത് ബിസിനസ് രംഗത്ത് ആ കാര്യം ഇപ്പോൾ ഈയിടെയാണ് കുറേ ആൾക്കാർ അതിൻ്റെ ഒരു ബിസിനസ് രീതിയിലേക്ക് ചെയ്യാൻ തുടങ്ങിയത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മള് മുൻപ് നമ്മുടെ നാട്ടിൽ നമ്മുടെയൊക്കെ നാട്ടിൻ പ്രദേശമായതുകൊണ്ട് നമുക്ക് അങ്ങനെ മാങ്ങാ എന്ന് പറയുമ്പോൾ നമുക്കതിനെക്കുറിച്ച് വലിയ വിലയോ എന്താ പറഞ്ഞാൽ അതിൻ്റെ ഒരു കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്താ പറയുക ഇപ്പോഴത്തെ ആൾക്കാർ അങ്ങനെയല്ല നമ്മടെ ഇപ്പോൾ ടൗൺ ഏരിയകളിലുള്ള ആൾകാര് അതുപോലെ ഈ മാങ്ങ കിട്ടാത്ത ആൾക്കാര് ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെയെന്ന് പറയുമ്പോൾ മാങ്ങ കുറേ കേറി പോണുണ്ട് നമ്മുടെ നാട്ടിൽനിന്ന് തന്നെ നമ്മുടെ ഓരോ പറമ്പിൽനിന്ന് ഓരോ ആൾക്കാര് വന്നു വലിച്ചിട്ട് പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ പിന്നെയാണ് ആലോചിച്ചത് അപ്പോൾ നമുക്കും ചെയ്യാലോയെന്നൊരു ടെക്നോളജിയിൽ ആലോചിച്ചു പിന്നെ നമ്മുടെ കുറേ ആൾക്കാർ എന്താ പറയുക ഈ നമ്മുടെ അവരുടെ തുച്ഛമായ വിലയ്ക്കാണ് എന്താ പറയുക പുറത്തുനിന്നും ആൾക്കാര് വലിച്ചിട്ടു പോവണതെന്ന് പറയുമ്പോൾ ഭയങ്കര വില കമ്മി ആയിട്ടാണ് കൊണ്ടു പോവുക അപ്പോൾ നമ്മള് കുറച്ചുകൂടെ വില കൂട്ടി കൊടുത്ത് നമ്മുടെ ആൾക്കാർക്ക് നമ്മുടെയിവിടുത്തെ ആൾക്കാർക്ക് തന്നെ നമ്മളവിടെ മേടിച്ച് എന്നിട്ട് നമ്മള് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോക്കലായിട്ടുള്ള മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് നല്ല അത്യാവശ്യം നല്ല വിലയ്ക്ക് വിൽക്കും എന്നിട്ട് അതിൽനിന്ന് ഒരു വരുമാനം നമ്മുടെ ഒരു അതായത് നമ്മൾ എങ്ങനെയാണോ മൊത്തം ചെയ്യാൻ നോക്കി മൊത്തം ആയിട്ടെടുക്കണത് അപ്പോൾ നമുക്കതിലൊരു ഷെയറും കാര്യങ്ങളും ബാക്കി എല്ലാവർക്കും അതിന്റേതായ ഒരു ഈക്വൽ ആയിട്ട് എന്തായാലും അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നതിനെക്കാട്ടിലും നല്ലൊരു ലാഭം ഇപ്പോൾ നമ്മുടെ കയ്യിൽനിന്ന് നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നുണ്ട് അവര് സാധാരണ അവർക്ക് കിട്ടുന്ന പത്തു രൂപയെന്ന് പറയുന്നത് നമ്മുടെ കൂടെ ചെയ്യുമ്പോൾ അവർക്ക് അമ്പത് രൂപ കിട്ടും കാരണം അത്രയും ലാഭം ഇതിൽ ഈ ബിസിനസ്സിൽ കിട്ടുന്നുണ്ട്